ഇപ്പം ശബ്ദത്തിൻ്റെ കാര്യം പറയുക ആണെങ്കിൽ ഒരു പാട്ടുകാരെ സംബന്ധിച്ചെടുത്തോളം അവരുടെ ഏറ്റവും വലിയ ഒരു സ്വത്താണ് അവരുടെ ശബ്ദം ആ ശബ്ദം സൂക്ഷിക്കുകാന്നുള്ളത് അവരുടെ കടമയാണ് അവർ കൂടുതലും ജലദോഷങ്ങൾ പനി അങ്ങനെയുള്ളതെല്ലാം വരാതെ സൂക്ഷിക്കണം അഥവാ ശബ്ദത്തിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനു വേണ്ടിയവർ ശബ്ദത്തിനു വിശ്രമം കൊടുക്കണം പിന്നെ അതിനുവേണ്ടി ചെയ്യാമെന്നത് പിന്നെ തണുത്തത് കഴിക്കരുത് പിന്നെ ഇടക്കിടക്ക് ചൂടുവെള്ളം വായിൽ കൊള്ളണം ഉപ്പിട്ട് ചൂടുവെള്ളം വായിൽ കൊള്ളുന്നതും പിന്നെ തേന് കുരുമുളക് എന്നിവ കഴിക്കുന്നതും ഒക്കെ ഈ വോയിസിൻ്റെ ശബ്ദത്തിൻ്റെ ഇടർച്ചയ്ക്ക് നല്ലതാണ് വന്നാൽ പെട്ടന്ന് സുഖപ്പെടുത്തണം എന്നുള്ളത് അവരുടെ അത്യാവശ്യം തന്നെയാണ് പിന്നെ അഥവാ ഒരു അടുത്ത ആഴ്ചയിലൊരു പാട്ടിന്റെ ഒരു പ്രോഗ്രാമവർക്ക് ഉണ്ടെങ്കിൽ ഒരാഴ്ച മുമ്പ് തന്നെ സംസാരത്തിന് പരമാവധി കുറച്ചു കൊണ്ടു വരണം വോയിസ് റെസ്റ്റ് കൊടുക്കുക എന്നുണ്ട് പിന്നെ രാത്രിയിൽ കുളിക്കാതിരിക്കുക തണുപ്പ് ഒത്തിരി അനുഭവപ്പെടാതെ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ചെയ്യേണ്ടത്